ഇന്നത്തെക്കാലത്ത് ഇന്നത്തെ നമ്മുടെ ലോകത്തിന്റെ അവസ്ഥയെന്ന് പറയുന്നന്നത് വളരെ ദയനീയമാണ് കാരണം ഒരു ഓരോ പ്രശ്നങ്ങളിൽപ്പെട്ട് ഓരോരോ വലിയ വലിയ ഓരോരോ വലിയ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ ലോകമിന്നു കടന്നുപോകുന്നത് ഒരിടയ്ക്ക് നിപ്പയായിരുന്നെങ്കിൽ പിന്നെയത് കൊറോണയായി ഇപ്പോഴത് വലിയ ട്രെയിൻ ദുരന്തവും അങ്ങനെ നിരവധി ദുരന്തങ്ങൾ കൊണ്ടും നമ്മുടെ ലോകം ഇല്ലാണ്ടായി പോകുക തന്നെയാണ് അത്രയ്ക്കുണ്ട് ഇന്നത്തെ നമ്മുടെ ലോകം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ലോകം നമ്മുടെ ലോകം വളരെ മാറിയിട്ടുണ്ട് പണ്ടെല്ലാം പ്രകൃതിയെ ആണെങ്കിലും പ്രകൃതിയെ സംരക്ഷിക്കാനും നോക്കാനും ഒരുപാട് പേരും ചുറ്റിലും ഉണ്ടെങ്കിൽ ഇന്ന് പ്രകൃതി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ് ചുറ്റും ഉള്ളത് അതിനെല്ലാം ഉള്ള മറുപടിയായിട്ടാണ് ഇന്നത്തെന്ന് ഇന്നത്തെ ഈ അവസ്ഥ എന്നു പറയേണ്ടിയിരിക്കുന്നു പ്രകൃതിയുടെ തിരിച്ചടിയാണ് ഇന്നുണ്ടാകുന്ന നമുക്കും കിട്ടുന്ന പ്രശ്നങ്ങളെല്ലാം ഇത്ര നാളും പ്രകൃതിയെ ചൂഷണം ചെയ്തതിനും എല്ലാത്തിനും പ്രകൃതി നമുക്ക് തിരിച്ച് തരുന്ന തിരിച്ചടി എന്നു തന്നെ പറയണം ഇതാ ഈ ലോകം അവസാനിക്കാൻ പോകുന്ന പോലെയാണിപ്പോൾ ഈ ഓരോ ആൾക്കാരും ആൾക്കാരും ഒരുപാട് പേർ മരിച്ചുകൊണ്ടിരിക്കുന്നു ദിനംപ്രതി പത്തും ഇരുന്നൂറ്റി അമ്പതും പേരാണ് മരിക്കുന്നത് ഓരോ കാരണങ്ങൾ കൊണ്ട് എങ്ങനെയാണ് എന്താണെന്നു പോലും അറിയാണ്ട് എങ്ങനെ മരിച്ചു എന്നുപോലും അറിയാണ്ട് ഒരുപാട് പേരുണ്ട്